ഓക്കെ കൂടുതൽ തൊഴിലധഷ്ഠിത വിദ്യാഭ്യാസം സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോയെന്നു ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് ആശാരിപ്പണി പ്ലംമ്പിങ്ങ് തുന്നൽ കോഴി വളർത്തൽ മൃഗ സംരക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ കുട്ടികളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗെയിംസ് അവരുടേതായ ഇഷ്ടാനുസ്രബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് പണ്ടത്തെ കാലത്ത് കുട്ടികളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ പറമ്പിൽ പോകുന്നു പുല്ല് ചെത്തുന്നു പശുവിൻ്റെ അടുത്ത് പോകുന്നു മൃഗങ്ങളെ നോക്കുന്നു കോഴിയെ വളർത്തുന്നു കോഴിയുടെ മുട്ട വിറ്റ് കാശുണ്ടാക്കുന്നു പിന്നെന്നാ അത്യാവശ്യം തുന്നലൊക്കെ പഠിക്കുന്നു ആശാരിപ്പണി പ്ലമ്പിങ് എന്നൊക്കെ പോകുന്നു അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇൻട്രസ്റ്റഡായിരുന്നു ബട്ട് ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടം അതല്ല ഒത്തിരിയേറെ തൊഴിൽ സാധ്യതകൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് ലോകത്തുള്ളത് സോ ആരും ഇൻട്രസ്റ്റഡ് അല്ല ആശാരപ്പണിക്കോ പ പ്ലംമ്പിങ്ങിനോ തുന്നലിനോ അല്ലെങ്കിൽ കോഴി വളർത്തലിനോ മൃഗ സംരക്ഷണത്തിന് ഒന്നു പോകാൻ സോ ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ചുരുക്കം ചില വീടുകളിൽ അതായത് ഈ ഹൈ റേഞ്ച് പോലെയുള്ള ഈ കുടിയേറ്റ മേഖലകളിലൊക്കെ മാത്രമേ കാണുകയുള്ളൂ കോഴി വളർത്തലും പശു വളർത്തലൊക്കെ ടൗൺ ഏരിയാസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരിടത്തും മൃഗങ്ങളെ വളർത്തുക അതൊന്നും ഷോയ്ക്ക് വീട്ടിൽ പട്ടിയെ വളർത്തുക പൂച്ചയെ വളർത്തുക അങ്ങനത്തെ അല്ലാതെ ഒരിടത്തും തന്നെ ഇന്ന് കോഴി ആട് പൂച്ച അങ്ങനത്തെയൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിചാരം തന്നെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അവരുടേതായ പാഷൻ ഇൻഫ്ലുവൻസ് അവരുടേതായ രീതിയിൽ മുൻപോട്ടു പോകുന്നു അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇത് സ്കൂളിലെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലത് കുട്ടികളറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെയും ജോലി ചെയ്യാം അല്ലെങ്കിൽ ഇതിലേക്കും കൂ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ച് വിടാം ഇപ്പം ഗെയിംസ് ഫോണിൽ ഗെയിം കളിച്ചിരുന്ന ടൈം കളയുന്ന പിള്ളേരുണ്ട് മിണ്ടാൻ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിക്കുന്ന കുട്ടികൾ കാണും പുറത്തു നിന്നു കളിക്കാൻ പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ പുറത്ത് കളിക്കാൻ കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ പോകുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊക്കെ കുട്ടികളെ വളർത്താന് എല്ലാരും കൂടെ കൂടിയൊന്ന് ജോലി ചെയ്യാൻ കൂട്ടത്തിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെയായിട്ട് കുട്ടികളെ പ്രാപ്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതികളും കൂടെ സ്കൂളുകളിലൊക്കെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി നല്ലതാണെന്നു തോന്നുന്നു